ഇപ്പം മലയാള ഭാഷ ദൈനദിനമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള എന്താ പറയുക ഇപ്പം പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട് അപ്പം അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരും ഉണ്ട് മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട് വേറെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാള ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അന്യം നിന്നുപോകുന്നൊരു കലാരൂപത്തെ പോലെയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം അവർ കൂടുതലായിട്ടും ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് കാരണം മലയാള ഭാഷ അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്തോ എന്താ പറയുക അവർ തരം താഴ്ന്നു പോകുന്ന ഒരു രീതിയിലേക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ എന്തൊരാളാണെന്നുള്ളൊരു അഹംഭാവവും കാര്യങ്ങളൊക്കെ മനുഷ്യർക്കിടയിലുണ്ട് അപ്പം അവർ കൂടുതലായിട്ടും ഇംഗ്ലീഷാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് ചിലർ ഇംഗ്ലീഷും മലയാളവും കൂടി കൂടി കലർത്തി സംസാരിച്ച് മലയാള ഭാഷയെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുക അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ളൊരു രീതിയാണ്